ഓ ഓ ജീവിതത്തിൽ കായിക വിനോദം ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മളുടെ ശരീരത്തിലായാലും നമ്മളുടെ കാലിനും കൈക്കുമൊക്കെ ഒരുപാട് ആരോഗ്യം തരാൻ നമുക്ക് കായിക കായിക കായികത്തിനു കഴിയുന്നുണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈക്കും ശരീരത്തിനുമൊക്കെ ഒരുപാട് വ്യായാമമാണ് അതുപോലെത്തന്നെ ചെസ്സ് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാനും അങ്ങനെ ഉള്ള എല്ലാ കായികമെന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് അതുപോലെത്തന്നെ നമ്മളുടെ ഇന്ത്യയിൽ കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് വർഷന്തോറും എന്നാൽ ഓരോ മ എല്ലാറ്റിനും എല്ലാ എല്ലാം കായിക വിദ്യാഭ്യാ എല്ലാ കായികത്തിനും വേണ്ടി മത്സരങ്ങൾ വെക്കണം പിന്നെ അതിനൊക്കായിട്ട് നല്ല നല്ലവണ്ണം പ്രോത്സാഹനം ഓരോ കായികത്തിനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് പേരു വരും അതുപോലെത്തന്നെ നമ്മളുടെ ഇന്ത്യക്ക് ഒരുപാട് ആരോഗ്യമുള്ള നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്